പാചകം എന്നത് പറയുന്നത് ഒരു കലയാണ് ഈ പാചകം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് അതിനുള്ള ചേരുവകൾ തയ്യാറാക്കി വെക്കുന്നത് വലിയൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഉദാഹരണം നമ്മളൊരു ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഉദാഹരണം ചെറിയുള്ളി പച്ചമുളക് വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെയെല്ലാം ചേരുവകൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ആ ഉണ്ടാക്കുന്ന പാചകത്തിന് ചേർക്കുകയും അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള അരവായിട്ട് നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്